ഞങ്ങളുടെ കൈയിലുള്ള സ്റ്റാമ്പ് ശേഖരണത്തില് പുതിയ വസ്തുക്കള് ഞങ്ങളെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നു ചോദിച്ചുകഴിഞ്ഞാല് ആദ്യകാലങ്ങളിലെക്കെ നമുക്കു വരുന്ന പോസ്റ്റൽ കവറുകളില്നിന്നൊക്കെ നമ്മള് പറിച്ചെടുത്തു കളക്റ്റെയ്യുകയാണു ചെയ്തിരുന്നത് പിന്നീടത് അങ്ങനെ സ്റ്റാമ്പുകള് കളക്റ്റെയ്യാനായിട്ടു ബുദ്ധിമുട്ടായ കാലം വന്നുകഴിഞ്ഞപ്പോള് ഞങ്ങള് പിന്നീട് മറ്റുള്ളവരുടെ അടുത്ത വീടുകളിൽ നിന്നും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയൊക്കെ വീട്ടിൽനിന്ന് അവരുടെ സ്റ്റാമ്പോ ലെറ്റേഴ്സിൽ നിന്ന് സ്റ്റാമ്പുകളൊക്കെ കളക്റ്റെയ്യാനുള്ള ഇതാരംഭിച്ചു അതിനുശേഷം അപ്പോഴതൊക്കെ പ്രാദേശികമായി കിട്ടുന്ന സ്റ്റാമ്പുകൾ മാത്രമേ നമുക്കന്നു ലഭിച്ചിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ

മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള വിദേശ രാജ്യങ്ങളിലും ഒക്കെ ജോലിചെയ്തിരുന്ന സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും വഴി നമ്മള് പിന്നീട് സ്റ്റാമ്പ് കളക്ഷനാരംഭിച്ചു അങ്ങനെ മറ്റുള്ളവരോട് കയ്യിൽനിന്ന് വാങ്ങാനും അവരെന്താണു കൊണ്ടുവരേണ്ടതെന്നു ചോദിക്കുമ്പോള് അവിടെ രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകള് അവിടുന്ന് കളക്റ്റെയ്യാന് പറ്റുന്നത്രയും മാക്സിമം കളക്റ്റെയ്തു കൊണ്ടുവരാനൊക്കെയാണ് നമ്മളാവശ്യപ്പെട്ടിരുന്നത് അങ്ങനെയാണ് നമ്മളവരുടെ കയ്യിൽനിന്നൊക്കെ സ്റ്റാമ്പുകള് കളക്റ്റെയ്തിരുന്നത് ഓൺലൈനായിട്ടൊന്നും സ്റ്റാമ്പ് ഞാൻ കളക്റ്റെയ്തിരുന്നില്ല അങ്ങനെ കളക്റ്റെയ്തിരുന്ന ആളുകള് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയുണ്ട് പക്ഷെ നമ്മളെല്ലാം നേരിട്ട് കളക്റ്റെയ്യാനുള്ള രീതിയിലാണ് കളക്റ്റെയ്തിരുന്നത് ഓൺലൈനായിട്ടിപ്പോള് പലതും ലഭ്യമാണ് പിന്നെ ലേലത്തിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടില് വളരെ കുറവായിരുന്നതുകൊണ്ടും അത്രയ്ക്കും പൈസ മുടക്കി സാധനങ്ങള് വാങ്ങിച്ചുവയ്ക്കാനുള്ളൊരു സാമ്പത്തികാവസ്ഥ അന്നത്തെക്കാലത്ത് നമുക്കില്ലായിരുന്നതുകൊണ്ടും നമ്മള് ലേലത്തിലൊന്നും പങ്കെടുക്കാൻ പോയിട്ടില്ല സ്വീകരിക്കുന്നവരുടെ കയ്യിൽനിന്ന് താല്പര്യമുള്ളവരോടൊക്കെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് കുറേച്ചെ കുറേച്ചെയെക്കായിട്ടാണെങ്കിലും പല തവണകളായിട്ട് നമ്മള് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് സ്റ്റാമ്പുകള് കളക്റ്റെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നാണയങ്ങള് നാണയങ്ങളെക്കുറിച്ചു പറയാണെങ്കിലിതു പോലെതന്നെയാണ് നമ്മള്ക്കു നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നയാപൈസ അണ ഓട്ടക്കാലണ അങ്ങനെയുള്ള പിന്നെ ഒരു പൈസ രണ്ടു പൈസ മൂന്നു പൈസ അഞ്ചു പൈസ പത്തു പൈസ അങ്ങനെയുള്ള പൈസകളും ഒക്കെയുള്ള നാണയങ്ങളൊക്കെ നമ്മുടെ ശേഖരത്തില് ഉണ്ടായിരുന്നു അന്യംനിന്നുപോയ അല്ലെങ്കില് ഗവൺമെൻറ്റിപ്പോള് നിരോധിച്ച പ്രാബല്യത്തിലില്ലാത്ത അങ്ങനെ ചെറിയ നാണയങ്ങളൊക്കെ നമ്മടെ കളക്ഷനിലുണ്ടായിരുന്നു പിന്നീട് വിദേശ രാജ്യങ്ങളിൽനിന്ന് വരുന്ന സുഹൃത്തുക്കള് വഴി നമ്മളാ രാജ്യത്തിൻ്റെ നാണയങ്ങളൊക്കെ കുറേ കളക്റ്റെയ്തിട്ടുണ്ട് അതു സൂക്ഷിച്ചുവെക്കുക എന്നുള്ളൊരു മാനസിക സന്തോഷമായും മാനസികോല്ലാസമൊക്കെയായിട്ടു നമുക്കന്ന് നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ട് എങ്കിലും ഇന്ന് ഇന്നത്തെക്കാലത്ത് അങ്ങനെ ഉള്ള കളക്ഷൻ നമുക്കു താൽപര്യം തോന്നുന്നില്ല കാരണം എന്താണെന്നുവച്ചുകഴിഞ്ഞാല് ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി ഏതു നാണയങ്ങളോ പഴയ കാലത്തുള്ളതോ പുതിയകാലത്തുള്ളതോ പല രാജ്യങ്ങളുടെയൊക്കെ നണയങ്ങളൊക്കെ നമ്മുക്കീസിയായിട്ട് ഇൻറ്റർനെറ്റിൽ സർച്ചെയ്താല് കാണാനും അതിനെക്കുറിച്ചു വിശദമായി പഠിക്കാനുമൊക്കെ സാധിക്കും പണ്ട് ഇവയൊന്നും ലഭ്യമല്ലായിരുന്നു മാനുവലായിട്ടുതന്നെ നമ്മള് ചെയ്തു നമ്മുടെ കയ്യിലുണ്ടെിൽ മാത്രം ഫിസിക്കലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കാണാനും അറിയാനൊക്കെ സാധിച്ചിരുന്നുള്ളു അതുകൊണ്ടുതന്നെ ഇന്നത്തെക്കാലത്തതിൻ്റെ പ്രസക്തി വളരെ കൊറഞ്ഞു എന്നാണ് എനിക്കു തോന്നുന്നത്